തുണിക്കട അല്ലേ ഇത് കാഞ്ചീപുരത്തിന്റെ സാരിയുണ്ടോ പച്ച ബോർഡർ ഉള്ളത് എത്ര രൂപയാകും രൂപ പിന്നെ അതിന് അതിലുള്ള അതിൽ വിത്ത് ബ്ലൌസോ അതല്ലാണ്ടെ വേറെ ബ്ലൌസ് എടുക്കണോ പിന്നെ വേറെ സെറ്റ് സാരിയൊക്കെ ഉണ്ടോ ഇല്ലായിരിക്കും അ മുണ്ടും ഷർട്ടും മുണ്ട് ആ പിന്നെ കുട്ടികൾക്കുള്ള പാവാടേ ചുരിദാറ് ആ എല്ലാ ഐറ്റും ഉണ്ട് ആ

ആ പിന്നേ ആൺകുട്ടി ആണുങ്ങൾക്ക് ഉള്ള തുണികളൊക്കെ ഉണ്ടോ ജീൻസൊക്കെ ഉണ്ടോ ഏ ഏ കുട്ടികൾക്കും ഉണ്ട് അല്ലേ മ്മ് പിന്നെ വയസായവർക്ക് ഉള്ളത് സെറ്റ് മുണ്ടോ

ലുങ്കി എല്ലാം ഉണ്ടല്ലോ ആ കാശ് എങ്ങനെയാണ് റേറ്റ്

അ അപ്പോൾ ശരി ഓക്കെ മാഡം വരം ശരി